ഇപ്പോ പലതരം ചെടികളൊക്കെ ഈ വേനൽ കാലങ്ങളിലൊക്കെ അതിജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പെടുന്ന ചെടികളുണ്ട് ഇഷ്ടംപോലെ കാരണമെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല രീതിയിലുള്ള വെള്ളം ആവശ്യം വരുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചിലപ്പോൾ വാടിപ്പോവാനും നശിച്ചു പോവാനും കരിഞ്ഞു പോവാനൊക്കെ ചാൻസ് കൂടുതൽ പലതരം ചെടികളുണ്ട് ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസാ റോസയ്ക്കൊക്കെ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഡാലിയ ഇതിനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം വെള്ളവും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സമയമാണ് ഇതൊക്കെ ഈ ഡാലിയയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ മഴ ടൈമുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പം മഴ സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഡാലിയ ഒന്നും ഇല്ല വെക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ കൂടുതലായിട്ടും വേനൽക്കാലത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഏത് സമയവും വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചുകൊടുത്താൽ മാത്രമേ അത് നന്നായിട്ട് വളർന്നു വരികയുള്ളൂ അപ്പം അതിനൊക്കെ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു ടൈമാണ് ആഹ് അതിനൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഉണങ്ങിപ്പോവാനും കരിഞ്ഞു പോവാനൊക്കെ സാദ്ധ്യതകളൊക്കെ കൂടുതലാണ് അപ്പം അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ എകദേശം എല്ലാ പൂക്കളും ചെടികൾ ആണെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാവും പിന്നെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി മാത്രമാണ് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പകൽ സമയം ഫുള്ളും വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും